ആ ആ ആ അതെ എന്താണ് ടീച്ചർ ആ അതെ എന്താണ് ടീച്ചർ അതെയോ എന്താണ് ആ പഠിക്കുന്നില്ല ഫോണിൽ അല്ലേ കളി ഫോണും ടി വി ആ ആ ആ ട്യൂഷൻ ആ ട്യൂഷന് പോകുന്നില്ല കുറേ പറഞ്ഞു ആ ആ ആ ആ ആ അത് തന്നെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒന്നും കേൾക്കുന്നില്ല കുറേ ആ ആ ആ ഈ ഓൺലൈൻ ക്ലാസ് ഉണ്ട് പറയുന്നത്

ആ ആ ആ ആ

ആ നോട്ട്സ് തരുന്നുണ്ടെന്ന് പറഞ്ഞു ആ അതെ ആ

ആ ഇനി മുതൽ ആ ഇനി മുതൽ ശ്രദ്ധിക്കാം ട്യൂഷന് ഇവിടെ അയക്കാം ആ ആ ആ ആ തലശ്ശേരി തന്നെ

ആ ഇനി ശ്രദ്ധിക്കാം ടീച്ചർ ഇനി ശ്രദ്ധിക്കാം ടീച്ചറെ ആ ആ ആ ആ എല്ലാത്തിലും ആ ശരി ശ്രദ്ധിക്കാം ആ ശരി